അതായത് വേണ്ടവിധത്തിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റിയതാണ് എൻ്റെ വശത്തു നിന്നുള്ള തെറ്റാണെങ്കിൽ അത് ക്ഷമിക്കണം സദയം ക്ഷമിക്കണം ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ നീളം അല്പം കുറവായിരുന്നു എൻ്റെ അളവിലല്ലായിരുന്നു അത് കിട്ടിയത് ഞാൻ നമ്പറ് തെറ്റിച്ച് അയച്ചതാണോ എന്നുള്ള ഒരു അബദ്ധംകൂടി എൻ്റെ മനസിൽ ഉ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ അതിന് വേണ്ട പൈസ ഞാൻ കൂടുതൽ ആവുന്നെങ്കിൽ അടച്ചുകൊള്ളാം ആ അഡ്രസ്സിൽ തന്നെ എനിക്ക് എത്രയും പെട്ടന്ന് തിരിച്ചു തരണമെന്നാണ് എൻ്റെ അപേക്ഷ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ഇല്ലാതെ പോയിട്ടാണോ എന്നെനിക്കറിയില്ല പക്ഷേ എത്രയും പെട്ടന്ന് അത് ഒന്ന് സാധിച്ചു തരണം അതിനുള്ള റദ്ദാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കണം പല വല്ല കടകളിൽ നിന്നും വേണേൽ എനിക്ക് വാങ്ങാമായിരുന്നു പക്ഷേ എളുപ്പത്തിനുവേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് ഓഡർ ചെയ്തതാണ് ഞാൻ പോകുന്ന വഴിയും വരുന്ന വഴിയുമൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്യാമായിരുന്നു സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനത് ആമസോൺ വഴി ഓർഡർ ചെയ്തതാണ് ഞാനെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും അതിന് ഈടാക്കിയാലും ഞാൻ സമയം കുറവായതുകൊണ്ട് അതൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് എത്തിച്ചു തരാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് അതായത് അതിൻ്റെ കളറിന് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ നീളം വലുപ്പം വലുപ്പത്തിൽ വന്ന കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ടെന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് ക്ഷമിക്കണം ഇനിയുമെന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ അയക്കുന്നതിന് മുൻപ് അപ്പോൾ ഇത് ഇപ്പം ഇപ്പം അയക്കുന്നതിനു മുൻപത് റദ്ദാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നടപടികൾ ഞാൻ മുന്നവേ എടുക്കണമായിരുന്നോ ആ അതിനുള്ള ഒരു അറിവ് എനിക്ക് തന്നാൽ നന്നായിരുന്നു ഇപ്പം ഞാൻ ഓർഡർ ചെയ്തുപോയി ഞാൻ ഓർഡർ ചെയ്തപ്പം ആമസോൺ വഴി ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് വലിപ്പം കൂടുതലായിട്ട് തോന്നി എൻ്റെ അബദ്ധത്തിൽ വന്ന തെറ്റാണ് പിന്നെ എൻ്റെ അളവ് നോക്കിയപ്പോൾ എൻ്റെ ഇഞ്ചും കാര്യങ്ങളും നോക്കിയപ്പോൾ അതിൻ്റെ വലിപ്പം കുറവായിട്ടാണ് കാണുന്നത് ഞാൻ കൊടുത്ത വലിപ്പത്തേക്കാൾ കുറവായിട്ടാണ് അത് ഓഡർ ചെയ്തതിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ വശത്തു നിന്ന് വന്ന തെറ്റാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഒന്ന് സാധിച്ചുതരണം കൂടുതൽ തുക ഈടാക്കണമെങ്കിൽ അതും ഞാൻ വീട്ടിക്കൊള്ളാം അപ്പോൾ സാറേ ഞാനത് എത്രയും പെട്ടന്ന് സാധിച്ച തരുമെന്നുള്ള എന്ന രീതിയിൽ ഞാൻ നോക്കിക്കാണുകയാണ് ഇനിയും എന്തെങ്കിലും എൻ്റെ വശത്തുനിന്നു ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ കൊള്ളാം അതായത് കളറിനൊന്നും വ്യത്യാസമില്ല പക്ഷേ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസം കാണുന്നുള്ളൂ ഇനീം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിവിൽ ഉണ്ടെങ്കിൽ എനിക്ക് എത്രയും പെട്ടന്ന് ഫോണിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയോ ഒന്ന് അറിയിക്കണം ഞാനെൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടന്നു അത് സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു